ഹലോ അതേല്ലൊ എന്തോ ആണോ ഏതു സൈസ് ബൊക്കെയാണ് വേണ്ടത് ചേച്ചി എന്നാ പൂക്കളാണ് വേണ്ടത് ഇവിടെ റോസാപ്പൂവുണ്ട് പിച്ചിപ്പൂവുണ്ട് മുല്ലപ്പൂവുണ്ട് ലില്ലിപ്പൂവുണ്ട് എല്ലാത്തരം വെറൈറ്റി പൂക്കളെല്ലാം തന്നെയുണ്ട് ഇലകൾ ഒക്കെ ഉണ്ട് ഏതു ടൈപ്പ് പൂക്കൾ വേണമെങ്കിലും തരാം ആ റെഡ് കളർ റോസാപ്പൂ ഇഷ്ടംപോലെയുണ്ടല്ലോ ഉണ്ട് ഉണ്ട് ഉണ്ട് ഒരു പൂവിന് പതിനഞ്ച് രൂപ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അ തരും തരും തരും കൂടുതൽ നമ്മൾ പൂവെടുക്കുന്നതനുസരിച്ച് വില കുറച്ചുതരാം ചേച്ചിക്ക് എന്തോരം ആവശ്യം അനുസരിച്ച് കുറച്ചുതരാം അ ചേച്ചി പിന്നെ ഷോപ്പിലേക്ക് വരാൻ സമയമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് വിലയെല്ലാം നോക്കി പോകാമായിരുന്നു അ നല്ല ഫ്ലവർ നോക്കി ചേച്ചിക്ക് തരാം റെഡ് കളർ ഫ്ലവർ നോക്കി ചേച്ചിക്ക് തരാം ചേച്ചി ഷോപ്പിൽ വന്നാൽ മതി റെഡ് നോക്കിയാൽ മതിയോ അതിൻ്റെ അകത്തു കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തതുംകൂടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഭംഗിയുണ്ടായിരിക്കും ആണല്ലേ അ അ ഇതിൽവെക്കാൻ ഇലകളൊക്കെ വേണ്ടേ അ അ അപ്പോൾ ചേച്ചി ഞങ്ങൾ ഈ പൂക്കൾ ഇവിടെ വന്ന് ചേച്ചി എടുക്കുവോ അതോ അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു തരണോ എന്താണ് എങ്ങനെയാ ചേച്ചിക്ക് വേണ്ടത്

ആഹ അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത് ചേച്ചിയെ ഞങ്ങൾ അവിടെ വന്ന് അവിടെ വന്ന് പ്രോഗ്രാം നടക്കുന്നടത്ത് വന്ന് സെറ്റ് ചെയ്തു തരണോ അതോ ചേച്ചി ഇവിടെ വന്ന് പൂക്കൾ എടുത്തുകൊണ്ട് പോയിക്കോളുമോ അ എന്നാൽ ഞങ്ങൾ അവിടെ വന്നു സെറ്റ് ചെയ്തു തരാം ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാൻ സ്റ്റാൻഡ് ഒക്കെ വെക്കണം അതിനൊക്കെ വേറെ പൈസ ആകും എല്ലാംകൂടെ ഒരു പാക്കേജ് ആയിട്ട് ചെയ്തു തരാം അ അ ഇത് എന്നത്തേക്കാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അ ഈ മാസം തന്നെയാണല്ലേ മുല്ലപ്പൂ ഇവിടെയുണ്ട് മുല്ലപ്പൂ ഇവിടെ നിന്ന് തന്നെ തന്നേക്കാം എന്തേ എത്രമുഴം വേണമെന്നൊക്കെ പറഞ്ഞാൽ മതി എല്ലാം സെറ്റ് ചെയ്തു വച്ചേക്കാം തലേ അ അ ഞങ്ങൾ തലേദിവസം വൈകുന്നേരം വന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് തരികയും മുല്ലപ്പൂവൊക്കെ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തേക്കാം ഒരുമുഴത്തിന് അമ്പത് രൂപ കൂടുതൽ എടുക്കുന്നതനുസരിച്ച് റേറ്റ് കുറച്ചു തരാവേ ഇത് എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അ നേരത്തെ എല്ലാം നേരത്തേ വന്ന് നോക്കാം ഇത് എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അ അഡ്വാൻസ് പേയ്മെൻറ്റ് വേണം അഞ ഒരു അഞ്ഞൂറ് രൂപ അഡ്വാൻസ് എൻ്റെ കയ്യിൽ തന്നാൽമതി ചേച്ചി ഇത് എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അ ആ പാരിഷ് ഹാളിലാണ് അല്ലെ അ ഞങ്ങൾ തലേദിവസം വന്ന് പൂവെല്ലാം അറേഞ്ച് ചെയ്ത് വച്ചേക്കാം അ എന്നാൽ ശരി